എൻ്റെ പ്രദേശങ്ങളിലെ വൃത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും നമ്മൾ അനാവശ്യമായിട്ട് അവിടെ ഇട്ട് ഇടരുത് ഇട്ടു കഴിഞ്ഞാലാണ് ഇത് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ ഈ അനാവിശ്യമായിട്ട് വളരുന്ന ഈ ബാക്ടീരിയാസൊക്കെ വളരാൻ സഹായിക്കുന്ന ഈ ചിരട്ടയിലുള്ള വെള്ളങ്ങളും അതുമൊക്കെ കമഴ്ത്തി കളഞ്ഞു അങ്ങനെ ഒക്കെ അങ്ങനെ അങ്ങനെ ചെയ്യണം പിന്നെ ഈ എന്താണ് പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ നുന്ന് ഉണ്ടാവുന്ന ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഹരിത കർമ്മസേനക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പാതി പ്രശ്നം മാറും പിന്നെ ഈ ഇത് എന്താണ് ഈ വീട്ടിലെ ഈ ഫുഡ് വെയ്സ്റ്റുകൾ അതിൻ്റെ ഒക്കെ അത് ഒരു പരിധി വരെ ഫുഡ് വേയ്സ്റ്റ് നമ്മൾ ചെടിക്ക് ഇട്ട് കൊടുത്താൽ ചെടിക്ക് അത് ഒരു വളം ആയിരിക്കും പിന്നെ എന്താണ് ചെയ്യേണ്ടത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊതുവായിട്ടുള്ള സലങ്ങൾ സൂക്ഷിക്കുക അതിന് മുമ്പ് നമ്മുടെ വീടുകൾ സൂക്ഷിക്കുക വീടുകൾ സൂക്ഷിക്കുക മീൻസ് നമ്മൾ ഒരു സാധനം കളയുന്നതിന് മുമ്പ് അത് നമുക്ക് വേറെ ഒരു രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ റീയൂസ് ചെയ്യുക റീസൈക്കിൾ റീയൂസ്സ് അങ്ങനെ ചെയ്യുക റെഡ്യൂസ് ചെയ്യുക കാര്യങ്ങൾ മേടിക്കുന്നത് കുറയ്ക്കുക ഇപ്പം പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ മേടിക്കുന്നവർകൊക്കെ അത് കളയാൻ കൺവീനിയൻ്റ് അല്ലെങ്കിൽ അത് മേടിക്കുന്നത് തന്നെ അങ്ങ് കുറയ്ക്കുക അപ്പം ഇത്തരം പ്രശ്നം ഇത്തം ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും